ഞാൻ പഠിക്കുന്നത് കുട്ടിക്കാനത്താണ് അതുകൊണ്ട് ഞാൻ അടുത്തുള്ള പീരിമേഡില് ചില ആവശ്യങ്ങൾക്കായി പോവാറുണ്ട് സാധനങ്ങൾ മേടിക്കുവാനും പിന്നെ ഹോസ്പിറ്റല് ഹോസ്പിറ്റ്കൾ ഫെസിലിറ്റീസിനും അങ്ങനെത്തെ കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ട് അത് ആവശ്യമായ സാധനങ്ങൾ മേടിക്കുവാനും ഒക്കെ പോവാറുണ്ട് പിന്നെ മുണ്ടക്കയം പോകാറുണ്ട് മുണ്ടക്കായം ബസ് സർവീസ് ഒക്കെ ഭയങ്കര സുഗമമാണ് അതുകൊണ്ട് മുണ്ടക്കയം പോകാറുണ്ട് പിന്നെ പിന്നെ അടുത്ത് കോട്ടയത്ത് പോവാറുണ്ട് കോട്ടയത്ത് സാധനങ്ങൾ മേടിക്കുവാനും ഡ്രസ് വസ്ത്രങ്ങൾ മേടിക്കുവാനും പിന്നെ വസ്ത്രങ്ങള് മേടിക്കുവാനും മരുന്നുകൾ മേടിക്കുവാനും സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും സമയം കളയാനും ഒക്കെ പോവാറുണ്ട് ഭക്ഷണം കഴിക്കുവാനും നല്ല ഹോട്ടലുകൾക്കും ഒക്കെ ഒക്കെ പോവാറുണ്ട് പത്തനംതിട്ട പോവാറുണ്ട് പത്തനംതിട്ട സ്ഥലങ്ങൾ കാണാനായിട്ട് പോവാറുണ്ട് ഇവിടെ പീരിമേഡ് എന്ന ഗ്രാമത്തിൽ പോവാറുണ്ട് അവിടെ വളരെ പ്രകൃതിരമണീയമായ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ പീരിമേഡ് പോവാറുണ്ട് പിന്നെ കുമളി പോവാറുണ്ട് കുമളി നല്ല തണുപ്പാണ് അതുകൊണ്ട് കുമളി പോവാറുണ്ട് കുമളിയിൽ ആളുകൾ വളരെ നല്ലവരാണ് അതുകൊണ്ട് തന്നെ അവിടെ പോവാറുണ്ട് അവിടെ സാധനങ്ങളൊക്കെ സുലഭമാണ് അതുകൊണ്ട് കുമളി പോവാറുണ്ട് പിന്നെ കട്ടപ്പന അവിടെ അടുത്താണ് അതുകൊണ്ട് തന്നെ കട്ടപ്പനയിൽ ഞാൻ ആഴ്ചയിൽ രണ്ടുപ്രാവശ്യം പോവാറുണ്ട് മുണ്ടക്കയത്തും അതുപോലെതന്നെ മാസത്തിൽ നാല് തവണയെക്കെ പോവാറുണ്ട് എവിടെയെങ്കിലും പോവണമെങ്കിൽ പൊതുവേ മുണ്ടക്കയം വഴിയാണ് ഞാൻ പോവാറ് അതുകൊണ്ട് തന്നെ മുണ്ടക്കയം ഞാൻ സന്ദർശിക്കാറുണ്ട് പൊന്കുന്നം വളരെ അടുത്തായത് കൊണ്ടും അത് വളരെ സാധനങ്ങളുള്ള സ്ഥലവായത് കൊണ്ടും അവിടെയും പോവാറുണ്ട് അവിടെ അവിടുന്ന് സാധനങ്ങൾ മേടിക്കുകയും പിന്നെ സാധനങ്ങൾ വിൽക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് കൂട്ടുകാരിൽ കൂട്ടുകാരെ സന്ദർശിക്കുന്നതിനും അവരുടെ വീടുകളിൽ പോകുന്നതിനും ഒക്കെ മുണ്ടക്കയത്തൊക്കെ പോവാറുണ്ട് കുമളിയിലും എൻ്റെ കൂട്ടുകാരെയും സന്ദർശിക്കുവാനും അവരെ കാണുവാനും ഒക്കെ പോവാറുണ്ട് പിന്നെ